യാഥാർഥ്യ സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള പുസ്തകങ്ങൾ ധാരാളമുണ്ടെങ്കിലും ഏറ്റോം കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങളാണ് സത്യം ഗാന്ധിജിക്കൊരു തപസ്സ് പോലെ ആയിരുന്നു എന്ന് ഗാന്ധിജി ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് സത്യം എന്നും നിലനിൽക്കുന്നതാണെന്നാണ് ഗാന്ധിജിയുടെ അഭിപ്രായം ജീവിതം തന്നെ സത്യമാക്കി മാറ്റണം എന്ന് ഗാന്ധിജി ഗാന്ധജിയുടെ അനുഭവത്തിലൂടെ ആ കൃതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നെ കുട്ടിയായിരിക്കുമ്പോൾ ചെയ്ത്പോയിട്ടുള്ള കള്ളത്തരങ്ങളക്കെ അദ്ദേഹം അതിൽ തുറന്ന് പറയുന്നുണ്ട് പിന്നെ അദ്ദേഹം സത്യത്തിൻ്റെ വഴിയിലേക്ക് നടക്കാൻ തുടങ്ങിയത് ഹരിചന്ദ്രൻ്റെ ഒരു നാടകം കണ്ടതിൽ പിന്നീട് ഹരിചന്ദ്രൻ സത്യത്തിന് വേണ്ടി ഒരു എന്തോന്നാണ് മൃതദേഹം ദഹിപ്പിക്കുന്ന ആ സ്ഥലത്തിൻ്റെ സൂക്ഷിപ്പ് ശ്മശാനത്തിൻ്റെ സൂക്ഷിപ്പ്കാരനായിരുന്നിട്ടും സ്വന്തം മകൻ്റെ ശവ ശരീരം സംസ്ക്കരിക്കാനായിട്ട് ഭാര്യ കൊണ്ട് വന്നപ്പോൾ ഭാര്യയിൽ നിന്ന് പോലും ആ സംസ്കരിക്കാനാവശ്യമായിട്ടുള്ള കൂലി ചോദിക്കുന്നു ആ സത്യസന്ധത ഗാന്ധിജിയെ വല്ലാതെ ആകർഷിച്ചു ആ പിന്നെ ജീവിതത്തിൽ സത്യം മാത്രമേ പിന്തുടരുകയുള്ളൂന്നും ഗാന്ധിജി ശപഥം ചെയ്യുകയാണ് ആ ശപഥം അദ്ദേഹത്തിൻ്റെ മരണം വരെ അദ്ദേഹം പിന്തുടർന്നു ആ ജീവിതം മുഴുവൻ സത്യമാക്കി തീർത്ത സത്യം ഒരു മന്ത്രം പോലെ ജീവിത കാലം മുഴുവൻ കൊണ്ട് നടന്ന മനുഷ്യനാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി സ്വന്തം രാജ്യത്തിന് വേണ്ടീട്ട് സ്വയം രക്ത സാക്ഷിയായ വ്യക്തിയാണ്